കായിക വിനോദം എന്നു പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഷട്ടിൽ കളിക്കുക നമ്മളെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും ഒരു ഒരുപാട് സങ്കടവും ദുഖങ്ങളൊക്കെയുള്ള എല്ലാവർക്കുമുണ്ട് ഓരോ കാരണങ്ങളുണ്ടാവും നമ്മൾ എന്നും ഹാപ്പിയായിട്ടൊന്നുമല്ല ഇരിക്കുക എന്നാൽ അങ്ങനെയിരിക്കുന്ന സമയത്ത് നമ്മൾ ഷട്ടിൽ കളിക്കാൻ കുറേ പ്രായമായ പെണ്ണുങ്ങളും നമ്മൾ കുറച്ചൊരു ഇത് അല്ലാത്ത കുറച്ച് ചെറുപ്പക്കാരൊക്കെക്കൂടി നമ്മൾ ഷട്ടിൽ കളിക്കും ഷട്ടിൽ കളിക്കുകയെന്നു പറഞ്ഞെങ്കിൽ നമ്മക്കൊരു വിനോദമാണ് നമ്മടെ ശരീരത്തിലൊരു എനർജി കിട്ടും കാരണം എനർജീയെന്നു പറഞ്ഞാൽ നമ്മുടെ ശരീരം മൊത്തത്തിലെപ്പൊഴും വീക്കായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാരും കൂടി കൂടി ഒരു സന്തോഷവും പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത് കളിക്കാമെന്നു പറഞ്ഞെങ്കിൽ നമ്മൾക്ക് ഒരു എന്താ പറയുക ആരോഗ്യത്തിന് എപ്പോഴും ഓട്ടം ചാട്ടം ഒക്കെ പോലെത്തന്നെയാണ് ഷട്ടിൽ കാരണം നമുക്കെല്ലാ കാര്യങ്ങൾക്കും ഒരു നടത്താണെങ്കിലും നമുക്ക് അസുഖങ്ങളെന്തെങ്കിലും നമ്മുടെ ശരീരത്തുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതിനും ഈ നടത്തങ്ങളും ആ പിന്നെ ഷട്ടിൽ കളിക്കുക ക്രിക്കറ്റ് കളിക്കുക ഓടുക നടക്കുക അതിൽക്കൂടിയൊക്കെ ഒരുപാട് രോഗങ്ങൾ നമ്മളിൽ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും എന്നുതന്നെ ഷുഗർ പ്രഷർ അങ്ങനെയെല്ലാം ഷുഗറാണേറ്റവും കൂടുതൽ നടത്തം നടക്കുന്നവർക്ക് ഇ ന്നു ഷുഗർ കുറയും കാരണം നമ്മളെ ജീവിതത്തിൽ ഷുഗറുള്ള ഒരുപാടാൾക്കാർ രാവിലെയെഴുന്നേറ്റ് നടക്കാൻ പോകുന്നത് നമ്മൾ കാണലുണ്ട് അവർ ഒരുപാട് പേർ രാവിലെയെഴുന്നേറ്റ് ഷട്ടിൽ കളിക്കുന്നതും നമ്മൾ കാണാം അതുപോലെ നമ്മളും എന്തെങ്കിലും വിഷമങ്ങളോ എന്തെങ്കിലും രോഗങ്ങളോ അങ്ങനെ അങ്ങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പ്രായമുള്ള അവരെല്ലം കൂടി നമ്മൾ ഷട്ടിൽ കളിക്കേണ്ടതാണ് ഞങ്ങളുടെ വിനോദം